ഹലോ ഇത് ഓലയല്ലേ ഓല എനിക്കൊരു പ്രശ്നം പറ്റിപ്പോയി കഴിഞ്ഞ റൈഡിന് പോയപ്പം കഴിഞ്ഞ റൈഡിന് ഒരു കാറ് ബുക്ക് ചെയ്തിരുന്നു ഒരു ഹ്യൂണ്ടായ് ഐ ടെൻ കാർ ബുക്ക് ചെയ്തിരുന്നു അവിടെ എൻ്റെ ഒരു വിലപ്പെട്ട ബാഗ് മിസ്സ് ചെയ്ത് പോയി അപ്പം അതിനകത്ത് ആണെങ്കിൽ ആണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് ആണ് ഉള്ളത് അപ്പം ഭയങ്കര ടെൻഷനിലാണ് ഇപ്പം അത് തിരിച്ച് കിട്ടാൻ ഇപ്പം എന്തെങ്കിലുമൊരു വഴിയുണ്ടോ എന്താണ് ഇപ്പം ചെയ്യണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്താണ് ഇപ്പം റെഡി ആവുക എങ്ങനെ ഇപ്പം റെഡിയാവുക ഓ ആ നമ്പർ തരാൻ പറ്റുമല്ലേ എന്നാൽ ഒന്ന് ആ നമ്പർ ഒന്ന് തരുമോ ഞാൻ വിളിച്ച് നോക്കാം ഓക്കേ ഓക്കേ ആ ഞാൻ വിളിച്ച് നോക്കാം ഞാൻ വിളിച്ച് നോക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല നമ്പറ് ഒമ്പത് ഒമ്പത് ഒമ്പത് അഞ്ച് ഒമ്പത് മൂന്ന് ഏഴ് പൂജ്യം എട്ട് എട്ട് ഓക്കേ താങ്ക് യു ഞാൻ വിളിച്ച് നോക്കാം ഓക്കേ ഹലോ ഇത് നേരത്തെ റൈഡിന് എൻ്റെ ഞാൻ റൈഡിന് നിങ്ങളെ കാറിലായിരുന്നു ഉണ്ടായത് ഹ്യുണ്ടായി ഐ ടെൻ എന്നെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ എൻ്റെ പേര് രാജി ആ അത് തന്നെ അത് തന്നെ ആ ചുവപ്പ് ഡ്രെസ്സ് ഇട്ട അത് തന്നെ അത് തന്നെ എൻ്റെ ഒരു വോലറ്റ് നിങ്ങളെ കാറിൽ വച്ച് മിസ്സായിട്ടുണ്ട് ഞാൻ അബദ്ധവശാൽ അവിടെ വച്ച് പോയതാണ് അത് തിരിച്ച് ഒന്ന് ഒന്ന് ചെക്ക് ഇപ്പം തന്നെ ആ ആ കാറ് പുറത്ത് ഉണ്ട് അല്ലേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുമോ ഓ ആ കാറിൽ തന്നെ ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പം അതെങ്ങനെ എനിക്ക് തിരിച്ചേൽപ്പിക്കാം പറ്റുക എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻസൊക്കെ അതിനകത്താണ് ഉള്ളത് നിങ്ങളുടെ ഓല അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് നിങ്ങളുടെ നമ്പറ് കിട്ടിയത് അതെ അതെ അതെ അപ്പോൾ അതെ അതെ അതെ അതുപോലെ തന്നെ നമ്പറ് കിട്ടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് സാധനം കിട്ടി വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ ആ സാധനം ഭയങ്കര ഇമ്പോർട്ടൻറായിട്ടുള്ള ഡോക്യൂമെൻറ്റ്സാണ് ഇനി ഇപ്പോൾ ആ ഡോക്യൂമെൻ്സ് ഇല്ലെങ്കിലും പുതിയതായി ഉണ്ടാക്കാനും നടക്കണം അങ്ങനെ ഓ നിങ്ങളുടെ ആൾക്കാർ ഇത്രയും നല്ലതാണ് വിചാരിച്ചില്ല സാധനങ്ങളൊക്കെ തന്നെ പെട്ടനെ തന്നെ കിട്ടി നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ അത് തന്നെ വല്യ കാര്യം അതിപ്പം എങ്ങനെ തിരിച്ച് ഏൽപ്പിക്കാൻ പറ്റുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം പറഞ്ഞാൽ മതിയാകുമോ മതിയാകുമല്ലേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കട ഉണ്ട് ആ കടയുടെ ഫോട്ടോ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യാം ലൊക്കേഷൻ അടക്കം അപ്പം നിങ്ങൾ അത് വച്ച് ഒന്ന് വന്നാൽ എന്നെ വിളിച്ചാൽ എന്നെ കിട്ടും ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു